ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള നൃത്തശൈലികളൊണ്ട്

ഓരോരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ തനതായ കലാരൂപങ്ങളും നൃത്ത ശൈലികളും ഉണ്ട് ഇതിലെ പ്രധാനപ്പെട്ട നൃത്ത ശൈലികളെപ്പറ്റി പറയുകയാണെങ്കില് മോഹിനിയാട്ടം

ഭരതനാട്ട്യം കഥക് ദാണ്ടിയ ബീഹു അങ്ങനെ ഒട്ടനവധി കലാരൂപങ്ങള് ഇന്ത്യയിലുണ്ട് ഇതിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം ഭരതനാട്യം മുതലായവ അതുപോലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കഥക് കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു നൃത്ത ശൈലിയാണ് കുച്ചുപ്പുടി ഇങ്ങനെ ഒട്ടനവധി ഓരോ സംസ്ഥാനങ്ങൾക്കും ഒട്ടനവധി നൃത്ത ശൈലികളുണ്ട് അതുപോലെ തന്നെ ഓരോ നൃത്ത കലാരൂപങ്ങളിലും പേരെടുത്ത ഒരുപാട് നർത്തകരുമുണ്ട്